എനിക്ക് വേറൊരു രാജ്യത്തിൽ പോകാന് അവസരം കിട്ടിയാല് അത് ക്യാനഡ ആയിരിക്കും ക്യാനഡ വളരെ മനോഹരമായ ഒരു രാജ്യമാണ് അവിടുത്തെ തണുത്ത കാലാവസ്ഥയാണ് എന്നെ വളരെ അധികം ആകര്ഷിച്ചത് അവിടെ പോകാന് വേണ്ടി നമുക്ക് വിസയുടെ ആവശ്യമുണ്ട് അതു രണ്ട് തരത്തില് നമുക്ക് എടുക്കാം ഒന്ന് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ജോലീന്റെ വിസയും രണ്ട് സ്റ്റുഡന്റ് വിസക്കും നമുക്ക് പോകാന് സാധിക്കും സാധിക്കുന്നതാണ് സ്റ്റുഡന്റിന്റെ വിസയിൽ നമ്മള് പോകുകയാണെങ്കിൽ അവിടെ ഐ എല് എസ് എക്സാം പാസാകേണ്ടതാണ് എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാന് താല്പര്യമുണ്ട് അതിനായി ഞാന് ഐ എല് എസ് എക്സാം പാസാകേണ്ടതിരിക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ മനോഹരമായ പല തരം കാലാവസ്ഥകള് എന്നെ ആകര്ഷിച്ചിരിക്കുന്നു